എൻ്റെ പ്രൊഡക്ട് ബെഡ്ഷീറ്റ് ആയിരുന്നു അത് മോശമായിട്ടുള്ള എന്ന് കളർ ഒന്നും കൊള്ളില്ലായിരുന്നു കളറൊക്കെ ഒരു അലക്ക് അലക്കുമ്പോത്തേനും കളറൊക്കെ പോകുമായിരുന്നു പിന്നെ ഇതു കോട്ടൺ ആയിരുന്നില്ല ഒരുമാതിരിയുള്ളൊരു മെറ്റീരിയൽ ആയിരുന്നു പിന്നെ കളർ ഡിസൈൻ ഒക്കെ ഒരു മോശം രീതിയിലാണ് ഇതുണ്ടായിരുന്നത് പിന്നെ കുറേ നൂലൊക്കെ ഇങ്ങനെ പിഞ്ഞി പിഞ്ഞി പോയിട്ടുണ്ടായി ഇതിൻ്റെ കുറേ ലെംഗ്ത്തി ഇല്ല അധികം അധികം നീളം ഒന്നുമില്ലാത്തൊരു ബെഡ്ഷീറ്റ് ആയിരുന്നു